ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് കേരളത്തിലെ സംസ്കാരം നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ്ങ് തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആണ് അവർ ചിലപ്പോൾ ഈ പണ്ടത്തെ നമ്മൾ പണ്ടുള്ള ആദിവാസികളും കാര്യങ്ങളൊക്കെ ഉടുക്കുന്ന പോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊരു നാടോടി നൃത്തത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയെന്ന് പറയാം അവരുടെ ഡ്രസ്സിങ്ങ് സ്റ്റൈൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാരിയും പിന്നെ മുണ്ടും ഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉള്ളതെന്ന് പറയാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടേയും ഒരു ചിന്താഗതിയൊക്കെ വേറെ വേറെ ആണ് ഇപ്പോൾ നമ്മളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ കുറച്ചും കൂടി നല്ല രീതിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും പൊതുവെ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു ദിവസം പോയി കഴിഞ്ഞപ്പോൾ അവിടെ തീരെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ അതായത് അവിടുത്തെ ബാംഗ്ലൂരിൽ എന്താ പറയുക നമ്മുടെ ബസ് സ്റ്റാന്റൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ല നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്